ബഡ്ജറ്റ് കേരള റെയിൽവേ ബഡ്ജറ്റ്കൾ വരുമാന സ്രോതസ്സുകളാണ് പിന്നെ ട്ടാക്സ്കൾ സർക്കാര്ൻ്റെ ട്ടാക്സ്കൾ അതുപോലെത്തന്നെ ലോട്രീ ലോട്രീൽനിന്നുള്ള വരുമാനം അതുപോലെത്തന്നെ മറ്റ് പരിപാടികളിൽനിന്നുള്ള വരുമാനങ്ങളെല്ലാം സർക്കാരിന് വരുമാനം തരുന്നതാണ് അതുപോലെത്തന്നെ പുതിയ പുതിയ ട്ടാക്സ്കൾ പെർമിറ്റ് ട്ടാക്സ് പഞ്ചായത്തുകളിൽനിന്നുള്ള പെർമിറ്റ് ട്ടാക്സ്കൾ അതുപോലെത്തന്നെ നമ്പരിങ് പഞ്ചായത്തിൻ്റെ നമ്പരിങ് അതുപോലെത്തന്നെ മറ്റ് വ്യവസായ ലൈസെൻസ്കൾ കടകളുടെയും മറ്റ് ലൈസെൻസ്കൾ അത്പോലെ അതുപോലെത്തന്നെ ബെസ്സ്കളുടെ പെർമിറ്റ് അതിൻ്റെ ട്ടാക്സ്കളെ അങ്ങനെ പല നികുതിയേതര വരുമാനങ്ങൾ ഒത്തിരി സർക്കാരിനുണ്ട് അത്പോലെ അതുപോലെത്തന്നെ നിക്ഷേപങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഇങ്ങനെ ഉള്ളതെല്ലാം സർക്കാരിൻ്റെ വരുമാന അ സ്രോതസ്സുളാണ് അതുപോലെത്തന്നെ കുടിവെള്ളവുമായിട്ട് ബന്ധപ്പെട്ട് ഇറിഗേഷൻ പല ഡിപ്പാട്ട്മെൻറ്റ്കൾ സർക്കാരിനുള്ള വാട്ടർ അതോറിറ്റി കെ എസ് ഇ ബി ഇങ്ങനെ ഉള്ള ഡിപ്പാട്ട്മെൻറ്റ്കളിൽനിന്ന് വരുന്ന വരുമാനങ്ങൾ അവരുടെ നികുതികൾ എല്ലാം സർക്കാരിൻ്റെ വരുമാനങ്ങളാണ് അതുപോലെത്തന്നെ ഗ്രാൻറ്റ്കളും വായ്പ്പകളും ഒക്കെ അതിൽനിന്നെല്ലാം ഇത് ചെയ്യുന്നു പുതിയ വാഹനം മേടിക്കുമ്പോൾ ഓൺലൈൻ ആയിട്ടുള്ള വാഹനം മേടിക്കുമ്പോൾ അതിൻ്റെ ടാക്സ് സർക്കാരിൽ വരുന്നു അങ്ങന അതുപോലെത്തന്നെ ഏതൊക്കെ മേഖലകളാണ് മറ്റ് അതിനെല്ലാം നികുതികളുമുണ്ട് അതുപോലെത്തന്നെ വായ്പ്പകൾ ബേങ്ക്കൾ വായ്പ്പ കൊടുക്കുമ്പോൾ അതിൻ്റെ ഇത് വരുന്നു അതുപോലെത്തന്നെ നികുതിയേതര വരുമാനങ്ങൾ എന്ന് പറഞ്ഞാൽ മറ്റു വരുമാന സ്രോതസ്സുകളെ പോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽനിന്നുള്ള ഇത് അതുപോലെത്തന്നെ മറ്റു വ്യാപാര സമുച്ചയങ്ങൾ അങ്ങനെയുള്ളത് വരുമ്പോൾ അതിൻ്റെ ട്ടാക്സ്കൾ വാഹനം പുതിയൊരു വാഹനം നിരത്തിലിറങ്ങുമ്പോൾ അതിൻ്റെ ട്ടാക്സ്കൾ ഇതെല്ലം സർക്കാരിൻ്റെ വരുമാന സ്രോതസ്സുകളാണ് മറ്റ് മേഖലകളെ സമസ്ത മേഖലകളിൽനിന്നുള്ള എന്ത് സേവനം കൊടുക്കുന്നു അതിനെല്ലാം നികുതികളും മറ്റും സർക്കാരിന് ലഭിക്കുന്നുണ്ട് ബഡ്ജറ്റ്കൾ അവതരിപ്പിക്കുമ്പോൾ അഞ്ച് വർഷ ബഡ്ജറ്റ്കൾ അവതരിപ്പിക്കുമ്പോൾ പുതിയ നികുതികൾ വരുന്നു അതിനനുസരിച്ച വരുമാനം സർക്കാരിന് വരുന്നു പുതിയ പുതിയ ഓരോ വർഷവും അവതരിപ്പിക്കുന്ന ബഡ്ജറ്റ്കൾ ഓരോ പുതിയ പുതിയ സാധനത്തിന് ഓരോ അതിനെല്ലാം വില കൂടുമ്പോൾ അതിൻ്റെ ലാഭം സർക്കാരിന് ലഭിക്കുന്നു അങ്ങനെയൊക്കെ സർക്കാരിന് മുന്നോട്ട് പോവുന്നത് ഈ ബഡ്ജെറ്റ്കളും അതുപോലെത്തന്നെ ധനവിനിയോഗവുമായിട്ട് ബന്ധപ്പെട്ടുള്ള നികുതിയേതര വരുമാനങ്ങളും കൊണ്ടാണ് ഗവൺമെൻറ്റ് പിടിച്ച് നിൽക്കുന്നത് മറ്റുള്ളവർക്ക് സേവനത്തോടൊപ്പം തന്നെ വിദ്യാഭ്യാസ ഇതിനൊക്കെ സേവന മേഖലകളാണ് വിദ്യാഭ്യാസവും മറ്റും ആരോഗ്യ മേഘലയുമൊക്കെ അതിനൊക്കെ പണം കണ്ടെത്തുന്നതൊക്കെ ഈ ബഡ്ജറ്റിൽനിന്നുള്ള വരുമാനം വഴി ഈ മേഖലയ്ക്ക് ഒക്കെ ഇത് കണ്ടെത്തുവാനായിട്ട് സർക്കാരിന് സാധിക്കുന്നുണ്ട് അതുപോലെത്തന്നെ നമുക്കറിയാം കുടിവെള്ളവുമായിട്ട് ബന്ധപ്പെട്ട അതിനെ ഇറിഗേഷൻ ഡിപ്പാട്ട്മെൻറ്റ് അതിന് നികുതി സർക്കാർ ഈടാക്കുന്നുണ്ട് സേവനവും ലഭ്യമാക്കുന്നുണ്ട് അതിനുള്ള വരുമാനവും സർക്കാരിന് കിട്ടുന്നുണ്ട് ആരോഗ്യമേഖലയിൽ സേവനം ഇത് ചെയ്യാനായിട്ട് തന്നെ നമുക്കറിയാം അതിനുള്ള വരുമാനങ്ങൾ സർക്കാരിന് കിട്ടുന്നുണ്ട് ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട് അത് സേവനമേഖലയാണ് എങ്കിൽപ്പോലും കിട്ടുന്ന ബഡ്ജറ്റിലൂടെ ഒക്കെ ലഭിക്കുന്ന വരുമാനങ്ങൾ ഈ മേഖലയിൽ വിനിയോഗിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെത്തന്നെ റോഡ്കൾ പീ ഡബ്ള്യൂ ഡീ വർക്ക്കൾ റോഡ്കൾ അതിൻ്റെ ഇത് അതുപോലെത്തന്നെ പഞ്ചായത്തുകളിൽ കെട്ടിവയ്ക്കുന്ന വരുമാനങ്ങളുണ്ട് ഇപ്പം കൊട്ടേഷൻ ആയിട്ട് ബന്ധപ്പെട്ട് അപ്പം അതുപോലെ വർക്ക്കൾ ഏറ്റെടുക്കുന്നവരുണ്ട് അപ്പം അവർ കൊട്ടേഷന് ഒരു തുക അതായിട്ട് തന്നെ കെട്ടി വയ്ക്കുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള വരുമാനങ്ങൾ കൊണ്ട് സർക്കാരിന് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കുന്നുണ്ട്